ഒന്നിലധികം തവണ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഇഷ്ട പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും ഇല്ല വായന പൊതുവേ ഇഷ്ടമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം അത് വായിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ നടന്ന സംഭവം പോലെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണത് തീർച്ചയായിട്ടും അതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തിയും വായിക്കേണ്ട ഒരു പുസ്തകമാണത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ നമ്മളിന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിൻ്റെ പിന്നാമ്പുറം അത് നന്നായിട്ട് വായിച്ച് നമുക്ക് ഓരോ ഇന്ത്യക്കാരനും വായിച്ച് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേരുടെ ത്യാഗങ്ങൾ ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വം ഒക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മള് നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ ലഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നാളുകളിലെ സംഭവങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയതിനുശേഷം നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങളെല്ലാം ആ പുസ്തകത്തിനകത്ത് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യവു മായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണാനായിട്ട് താല്പര്യവുമുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള്